വര്ഷങ്ങളുകൊണ്ട് ഓരോ വര്ഷം കഴിയുന്ന സമയത്ത് ഇന്ത്യന് വിനോദ വ്യവസായത്തില് ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിനോദം ആള്ക്കാര് എന്താണ് സാറ്റിസ്ഫൈഡ് ആവുന്നത് അല്ലെങ്കില് ആൾക്കാർ കാണാന് ആഗ്രഹിക്കുന്നത് വിനോദങ്ങളോരോ രീതിയും ഓരോന്നാണ് ഓരോ വ്യക്തികള്ക്ക് ഓരോ താല്പര്യത്തിന് അനുസരിച്ചിട്ടാണ് വിനോദങ്ങള് അവർ കാണുന്നത് അപ്പോൾ പല ഭാഗത്തും പല വിനോദങ്ങൾ ഇന്ത്യയിൽ വികാസം പ്രാപിച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാവിടെയും ഓരോ ഇതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ക്രിക്കറ്റാണെങ്കിലും ഫുട്ബാള് ആണെങ്കിലും ഹോക്കിയാണെങ്കിലും ഓരോരുത്തരുടെ ഇതാണ് കൂടുതലായിട്ട് നമ്മളീ ഫുട്ബോളിൻ്റെ ലോകകപ്പൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാടാള്ക്കാര് ലോകകപ്പിരുന്ന് കാണുന്നതാണ് ഒരുപാട് ഫുട്ബോള് പ്രേമികളൊക്കെ ഉണ്ട് അപ്പോൾ അവര്ക്ക് വേണ്ടിയിട്ട് കുറേ ചെയ്യാറുണ്ട് പിന്നെ നമ്മുടെ ഇന്നത്തെ ആധുനിക രീതിലുള്ള കുറേ വിനോദങ്ങളാണ് ഇതൊക്കെ ഈ ക്രിക്കറ്റ് ഈ രീതിയിലൊക്കെ വന്നത് അതൊക്കെ നല്ല രീതിയിൽ എല്ലാവരും എന്തു ചെയ്യുന്നു ആസ്വദിക്കാറുണ്ട് അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാന് വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് സംഘടനകളും അതൊക്കെ ഉണ്ട് പക്ഷെ പണ്ടത്തെ ആള്ക്കാരെന്നു പറയുമ്പോൾ ഇതിനോടൊപ്പം തന്നെ നാടന് കലാരൂപങ്ങൾ കാണാന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആള്ക്കാർ ശ്രമിക്കുന്നുണ്ട് ആള്ക്കാർ ആഗ്രഹിക്കുന്നുണ്ട് നാടന് കലാരൂപങ്ങളാണ് എപ്പോഴും അന്നും ഇന്നും ഒരേ രീതിയിൽ നിൽക്കുന്നൊരു കലാരൂപങ്ങളാണ് നാടന് കലാരൂപങ്ങള് എന്ന് പറയുന്നത് ഇപ്പോഴും അത് കാണാന് ആള്ക്കാരുകള് ഉണ്ടാവും നമ്മളീ തമാശയും അതുപോലെത്തന്നെ പണ്ടത്തെ ഓരോ വിഷയങ്ങളും അതൊക്കെ ഉള്പ്പെടുത്തിക്കൊണ്ട് ഹാസ്യകരമായിട്ടുള്ള കാര്യങ്ങള് ഉള് അവതരിപ്പിച്ച് ഒരു രീതിയിലേക്ക് കൊണ്ടുവരാന് പണ്ടത്തെ നാടന് കലാരൂപങ്ങളെക്കൊണ്ട് എന്ത് ചെയ്യാറുണ്ട് സാധിക്കാറുണ്ട് അതുതന്നെയാണ് എല്ലാവര്ക്കും എന്താണ് കാണാന് ഇഷ്ടം ഇന്ത്യയിലെ ഇന്ത്യയിലെ ആളുകള്ക്ക് ഒട്ടുമിക്ക ആളുകളും അങ്ങനെയുള്ള കാര്യങ്ങള് കാണാന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് പക്ഷെ ട്രെന്ഡ് മാറുന്നതിനനുസരിച്ചിട്ട് എന്താണ് ഓരോ കലാവതരണങ്ങളും ഓരോ രീതിയിലാണ് ഇപ്പോൾ മുതിര്ന്നവർ കാണാന് ആഗ്രഹിക്കുന്ന വിഷയങ്ങളായിരിക്കില്ല വളരെ ചെറിയ കുട്ടികള് കാണാന് കുട്ടികളെന്ന് പറയുമ്പോൾ അവര്ക്ക് എന്താണ് നല്ല ഹാസ്യപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവണം അവര്ക്ക് ചിരിക്കാനുള്ള കാര്യങ്ങള് ഉണ്ടാവണം അങ്ങനെയുള്ള കാര്യങ്ങളാണാവശ്യം മുതിര്ന്നവരെന്നു പറയുമ്പോൾ അവര്ക്ക് ചിന്തിക്കാനുള്ള കാര്യങ്ങൾ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടായിരിക്കും ആര്ക്കുണ്ടാവുക ഇവര്ക്ക് എന്താണ് മുതിര്ന്ന ആള്ക്കാര്ക്കുണ്ടാവുക അല്ലാതെ എല്ലാ അല്ലെങ്കിലെല്ലാ എല്ലാ തരത്തിലുള്ളടക്കങ്ങളുള്ള സിനിമകളിന്ന് ഇറങ്ങാറുണ്ട് കലാരൂപങ്ങൾ ഇറങ്ങാറുണ്ട് അപ്പോൾ അത് ചിരിയും ചിന്തിപ്പിക്കാനും അത് കുട്ടികള്ക്കും മുതിര്ന്നവര്ക്കും ഒരുപോലെ കേള്ക്കാനും കാണാനും പറ്റുന്ന കുറേ കലാരൂപങ്ങള് എന്നുള്ള നാടിലിറങ്ങാറുണ്ട് അപ്പോൾ അതാണേറ്റവും കൂടുതല് എല്ലാവരും കൂടുതലായിട്ടും കാണുന്നതും കേൾക്കുന്നതും കേൾക്കാന് ശ്രമിക്കുന്നതും ഒക്കെ അതാണ് തോന്നുന്നു അതിൻ്റെ ഒരു ഇതിൽ വച്ചിട്ട് അപ്പോൾ വര്ഷങ്ങള് കൊണ്ട് ഒരു ഒരുപാട് വര്ഷം കൊണ്ട് ഇങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ കാണുന്നതും കേള്ക്കുന്നത്തിലും വലിയ വ്യത്യാസം വന്നു നമ്മുടെ ഇഷ്ടങ്ങളും അഭിരുചികളൊക്കെ മാറിയപ്പോ അതിനനുസരിച്ചിട്ട് എന്തു ചെയ്യാ അത് പ്രോത്സാഹിപ്പിക്കണ ആള്ക്കാര് അത് വളർത്തിയെടുക്കുന്ന രീതി രീതി മാറി മാറി വന്നിട്ടുണ്ട് നമ്മൾ പണ്ട് കണ്ട കലാരൂപങ്ങളൊന്നും ഒന്നുമല്ല ഇന്നത്തെ കലാരൂപങ്ങളെന്നു പറയുന്നത്